വ്യാകരണവും ഉച്ചാരണവും എന്ന വിഷയത്തെ കുറിച്ചു പറയുമ്പോൾ നമ്മുടെ വ്യത്യസ്ത ജില്ലകളിൽ തന്നെ ഭാഷ കൈകാര്യം ചെയ്യുന്ന രീതിക്ക് വ്യത്യാസമുണ്ട് ഇപ്പം പ്രധാനമായി മലയാള ഭാഷയുടെ സവിശേഷതകൾ പറയുകയാണെങ്കിൽ തന്നെ പതിനാല് ജില്ലകൾ ഉണ്ടെങ്കിലും പതിനാല് ജില്ലകളിലെ ആളുകളുടെ സംസാര രീതിയും പതിനാല് രീതിയിലാണ് അപ്പം ഇപ്പം മലയാള ഭാഷ സംസാരിക്കുമ്പോൾ തന്നെ പതിനാല് ജില്ലയിലെ ആളുകളും വ്യത്യസ്തമായ ശൈലികളാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ ഉച്ചാരണവും വ്യാകരണവുമെല്ലാം വളരെ വ്യത്യസ്തമായ ശൈലിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് ചില സ്ഥലങ്ങളിൽ ഭാഷ ഭാഷയുടെ ഉപയോഗം നീട്ടിയും കുറുക്കിയും അങ്ങനെ വാക്കുകൾ കുറവു വന്നും ഇപ്പം അങ്ങനെ വ്യത്യസ്തങ്ങളായ എറണാകുളത്തുകാരുടേത് വ്യത്യസ്തമായ രീതി തിരുവനന്തപുരത്തുകാരുടേത് വേറൊരു രീതി ഇടുക്കി കോട്ടയം എല്ലാം ഇടുക്കിയും കോട്ടയൊവൊക്കെ ഒരു വല്യ വ്യത്യാസങ്ങളില്ലാത്ത രീതിയിൽ എങ്കിൽ പോലും ഓരോ സംസാരത്തിനും അതിൻ്റെതായ വ്യത്യാസങ്ങൾ കണ്ടു വരുന്നുണ്ട്

ഓരോ ജില്ലകൾക്കും വ്യത്യസ്തമായ ഉച്ചാരണ ശൈലിയും വ്യാകരണോം പൊതുവേ കണ്ടുവരാറുണ്ട് ഇതാണ് മലയാള ഭാഷയുടെ പ്രത്യേകത സവിശേഷത അപ്പം മലയാള ഭാഷ കൈകാര്യം ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ വ്യാകരണം ഉച്ചാരണം വളരെ വ്യത്യസ്തമായ ശൈലിയാണ് ഉപയോഗിക്കുന്നത് അത് ഭാഷ കൈകാര്യം ചെയ്യുന്ന രീതിയിലെല്ലാം നമുക്ക് വളരെ വ്യത്യാസം നമുക്ക് കണ്ടു വരുന്നുണ്ട് അങ്ങനെ ആളുകൾ അത് കൊച്ചു കുട്ടികൾ ആയിരിക്കുമ്പോൾ തന്നെ അവരുടെ ജന്മ സ്വഭാവമായിട്ട് ഓരോ ജില്ലയിൽ താമസിക്കുന്ന ആളുകളുടെ കുട്ടികൾ ആ രീതിയിലുള്ള സംസാര രീതികളാണ് കണ്ടുവരുന്നത് അപ്പം അതുപോലെ തന്നെ നമ്മളിപ്പം ഒരു ജില്ലയിൽ നിന്ന് അടുത്ത ജില്ലയിൽ കുറേ താമസം മാറി അവിടത്തെ രീതിയും കൾച്ചറുമായിട്ട് വർഷങ്ങൾ പഴകി കഴിയുമ്പോൾ ആ ഒരു ശൈലി നമ്മളിലേക്കും രൂപപ്പെടുന്നതായിട്ട് കണ്ടുവരാറുണ്ട് ആ സംസാര രീതി നമ്മളറിയാതെ നമ്മളിലേക്ക് ലയിക്കുന്ന ഒരു രീതിയും നാം പൊതുവെ കണ്ടു വരാറുണ്ട് ഇപ്പോൾ ഭാഷകളാക്കിയായാലും വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി ആളുകള് പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ പഠിക്കുന്നതുപോലെ നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ